ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് എം പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് രാഹുൽഗാന്ധിനെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാവർക്കും ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പോളിറ്റീഷ്യൻ ആണ് രാഹുൽ ഗാന്ധി അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ വയനാടിൻ്റെ എം പിയാണ് രാഹുൽ ഗാന്ധി പിന്നെ നമ്മുടെ എം എൽ എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ മൂന്ന് മണ്ഡലങ്ങളാണ് ഉള്ളത് മൂന്ന് മണ്ഡലത്തിൽ നമ്മുടെ മാനന്തവാടി മണ്ഡലം മണ്ഡലത്തിൽ ഒ ആർ കേളുവാണ് എം എൽ എ പിന്നെ അതായത് സുൽത്താൻ ബത്തേരി ആ മണ്ഡലത്തിൽ നമ്മുടെ വേറൊരു എം എൽ എ ആണ് ഉള്ളത് പിന്നെ കൽപ്പറ്റയിൽ ടി എൻ സിദ്ദിക്കാണ് എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെത്തന്നെയുഉള്ള ഒരു പി എൻ ബാലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ തന്നെ ഒരു പാ അതായത് നമ്മുടെ വാർഡ് മെമ്പറും കൂടെയാണ് പുള്ളി അപ്പോൾ ഇവരൊക്കെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും കൂടുതലായിട്ടും കുറച്ചും കൂടി നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിതുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്